ഓ നമ്മുടെപാലക്കാട് ജില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഗ്രാമ ജില്ലാ ആയിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക അധികം അങ്ങനെ ഇപ്പോൾ എറണാകുളം പോലെ അത്ര ഒരു വലിയൊരു ഇതില്ലെങ്കിലും ഇവിടെ അധികവും ഗ്രാമപ്രദേശങ്ങളാണ് ഗ്രാമീണ ജനങ്ങളാണ് ഇവിടെ കൂടുതലും അത് കാരണം തന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള ആശുപത്രികൾ ഉണ്ട് ഇല്ലയെന്നല്ല എന്നാലും ആ അത്രയൊരു ആധുനിക പരമായിട്ടുള്ള ആശുപത്രികൾ നമുക്ക് കുറവാണ് പിന്നെ ഇപ്പം ഇവിടുത്തെ ആൾക്കാരെന്നു പറഞ്ഞാൽ നമ്മൾ അധികം പ്രാ ഗ്രാമീണ ജനങ്ങളായതുകൊണ്ട് ആശുപത്രിയിൽ പോകാനും കുറച്ചു മടിയുള്ള ആൾക്കാരാണ് അപ്പം അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ തന്നെ അവർ നാട്ടു ചികിത്സയാണ് കൂടുതലായിട്ട് അവർ ചെയ്യാറ് അപ്പം അതുകൊണ്ടുതന്നെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതുമൂലം ഉണ്ടാകുന്നു പിന്നേ ജില്ലയിൽ തന്നെ ഇതിനെ ആശുപത്രികളെ മെയിൻ ആയിട്ടും പാലക്കാട് ടൗണിലും കാര്യങ്ങളിലും ഒക്കെയാണ് മെയിൻ ആയിട്ട് ആശുപത്രികളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പെട്ടെന്ന് രാത്രികളിൽ ഒക്കെ എത്തിപെടാവുന്ന ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും കിടപ്പ് രോഗികൾ ആണെങ്കിലും അതുപോലെ വയോധികർക്ക് ആണെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുറച്ചു ചില ബുദ്ധിമുട്ടും ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ പ്രശ്നങ്ങൾ